നമ്മളിപ്പോള് ഒരു പുസ്തകം വായിക്കുകയാണെങ്കിലും ഏത് പുസ്തകമാണെങ്കിലും ശരി നമ്മള് വായിക്കാൻ വേണ്ട അന്തരീക്ഷം ചുറ്റും നോക്കണ്ടതാണ് ആദ്യം തന്നെ നമ്മളുടെ പുസ്തകമോ അല്ലെങ്കില് ഒരു ആരോഗ്യമാസിക അല്ലെങ്കിൽ പുതിയൊരു നോവല് എന്തെങ്കിലും വായിക്കുമ്പോള് നമുക്ക് അത് വായിക്കാന് പറ്റിയൊരു അന്തരീക്ഷം ഒരു ചുറ്റുപാട് തെരഞ്ഞെടുക്കുക ആരേം ശല്യമൊന്നുമില്ലാത്ത നല്ലൊരു സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് നമുക്ക് ആ പുസ്തകങ്ങള് നന്നായിട്ട് വായിക്കാനും അതിനകത്ത് പറയുന്ന കാര്യങ്ങള് നമുക്കു മനസ്സിലാകാനും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള നമുക്ക് ഒരു പെട്ടെന്ന് സഹായകമാകും ആ സമയം നമ്മള് ഇപ്പോള് പുസ്തകം വായിക്കുമ്പോള് ടി വി കാണുന്ന റൂമിനടുത്ത് നിന്ന വായിക്കിന്നെ ആ ടി വിയില് ശ്രദ്ധ നമ്മുടെ വായനയും കൂടെ തമ്മിൽ കുഴഞ്ഞു പോകും അത് അപ്പോള് ആ അങ്ങോട്ടെ ശ്രദ്ധ വരുത്തുള്ളൂ നമ്മള് വായിക്കുന്നെ കാര്യങ്ങള് എന്താണെന്ന് നമുക്കു മനസ്സിലാകത്തില്ല മനസ്സിലാകാതെ ബുദ്ധിമുട്ടായിരിക്കും ആ സമയം നല്ലൊരു ചുറ്റുപാട് നല്ല അന്തരീക്ഷത്തിൽ നിന്ന് നമ്മള് വായിക്കുകയാണെങ്കില് നമുക്കത് പെട്ടെന്ന് നമ്മള് വായിക്കുന്ന കാര്യം എന്താണെന്നുവച്ചാല് പെട്ടെന്നു മനസ്സിലാവുകയും പെട്ടെന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാനുള്ള ഗ്രഹിച്ചെടുക്കാനും സാധിക്കും നമ്മള് ഏതു പുസ്തകമാണ് ശരി നോവലായാലും ശരി നല്ലൊരു കഥാ പുസ്തകമാണെങ്കിലും ശരി നമുക്ക് വായിക്കുന്നതില് നല്ലൊരു ഇത് ഉണ്ടെങ്കില് പെട്ടെന്ന് നമുക്കത് മനസ്സിലാവാൻ സാധിക്കും അപ്പോള് ഇത് പുസ്തകമേതു വായിച്ചാലും നമുക്കൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കേണ്ടതാണ് നല്ലൊരു ചുറ്റുപാട് നമ്മള് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മള് ഏത് പുസ്തകമാണേലും ശരി നോവലാണേലും ശരി നമ്മള് ഇരിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടും അനുസരിച്ചിരിക്കും നമുക്ക് എത്ര പെട്ടെന്ന് ഗ്രഹിക്കാനും ഇരിക്കുന്നെ അതു എല്ലാം നമ്മളിപ്പോള് ഒരു വല്ലാത്ത ഇതില് ഇരിക്കുക ആണെങ്കില് പെട്ടെന്ന് നമുക്ക് ഉറക്കം വരാനോ അങ്ങനെ സാധ്യതയുണ്ട് ഇപ്പോള് നമ്മള് എവിടെ ഏതു പുസ്തകമാണെന്ന് വച്ചെങ്കില് നമ്മള് വായിക്കാൻ വേണ്ട തെരഞ്ഞെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്